സ്വച്ഛ് ഭാരത് അഭിയാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളെ പ്രധാനമന്ത്രി തുടങ്ങിയൊരു പദ്ധതിയാണെന്നാണ് കേട്ടിരുന്നത് വൃത്തികേടായ ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളില് കൂടുതല് ഇത് ഉപകാരപ്രദമാക്കും അപ്പോള് നമ്മുടെ കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കില് അത്യാവശ്യം ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ജനങ്ങളാണ് കൂടുതലുള്ളത് നോർത്തിന്ത്യയെ സംബന്ധിച്ച് കണക്ക് നോക്കുമ്പോള് ഏറ്റവും നല്ല രീതിയില് സൗത്തിന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളം നല്ല രീതിയില് തന്നെ നമ്മുടെ നഗരങ്ങളിലാണെങ്കിലും ഗ്രാമാന്തരങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും നല്ല വൃത്തിയില് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോള് നമ്മളവിടെ ക്ലബ്ബുകളുടെ കീഴിലൊക്കെ എല്ലാ വർഷവും ഇപ്പോഴും മഴക്കാലത്താണെങ്കില് കാട് വെട്ടി തെളിച്ചിട്ടും പിന്നെ പുഴകള് ഇപ്പോള് വേനല്ക്കാലത്ത് കാട് മൂടിക്കിടക്കുന്ന പുഴകളും പുഴകളെല്ലാം അപ്പോള് കുളങ്ങള് ഇതൊക്കെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്ന ഒരു സംഭവം പിന്നെ മഴക്കാലത്ത് കൊതുക് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ കീഴില് ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ കൃത്യമായ സമയത്തിടപെട്ടിട്ട് ഓരോ പദ്ധതികളും പിന്നെ ആരോഗ്യ ആരോഗ്യകരമായ കാര്യങ്ങള് എല്ലാവരും പാലിക്കുന്നതിന് വേണ്ട നിർദേശങ്ങൾ കാരണം കീഴിൽ നിന്നും പഞ്ചായത്തിൻ്റെ കീഴില്നിന്നും കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരും എല്ലാർക്കും എത്തിച്ചേരലുണ്ട്